കൃഷികളിലെ ഏറ്റവും അധികം ഫലപ്രദമായൊരു മാർഗ്ഗമാണ് യന്ത്രവൽക്കരണം വന്ന ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ളത് കാരണം യന്ത്രവൽക്കരണം മൂലം മനു മനുഷ്യൻ ചെയ്ത് കൊണ്ടിരുന്ന ജോലികളെ യന്ത്രങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പളത്തേനും അതിൻ്റെ കോസ്റ്റ് ഉടമകൾക്കതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സമയമാണെങ്കിലും പണ്ട് ആളുകളിറങ്ങി ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കുമായിരുന്നു പക്ഷേ യന്ത്രങ്ങൾ വന്നതോട് കൂടി ജോലി ചെയ്യുന്നതിനുള്ള സമയം സമയം വളരെ അധികം കുറഞ്ഞിരിക്കുന്നു കൃഷി തയ് നടുമ്പഴും അതുപോലെ അതിൻ്റെ വിളവെടുക്കുന്നതുമൊക്കെ ഇന്ന് പല പലരീതിയിലുള്ള യന്ത്രങ്ങളുടെ സഹായത്തോട് കൂടെ കേരളത്തിൽ ചെയ്യുന്നുണ്ട് അത് ലാർജ് സ്കെയില് കൃഷി ചെയ്യാനും അത് കൂടുതൽ കൃഷിയുടമകൾക്ക് ഫലം പ്രോഫിറ്റബിൾ ലാഭം ലഭിക്കാനും ഇത് വഴി സഹായമാകുന്നുണ്ട് അതുപോലെ ആളുകൾക്ക് കൊടുക്കേണ്ട കൂലി ചെലവാണെങ്കിൽ പോലും കർഷകർ കൃഷിയുടമകൾക്ക് വളരെ അധികം കുറവാണ് ഇതുവഴി ഉണ്ടാകുന്നത് അതുപോലെ യന്ത്രവൽക്കരണം കൃഷിയിൽ നിന്നല്ല എല്ലാ മേഖലകളിലും യന്ത്രവൽക്കരണം വരുന്നത് നല്ലൊരു കാര്യമാണ് എന്നാൽ പോലുമത് ജനങ്ങളുടെ തൊഴിൽ അവസരങ്ങളെ ബാധിക്കുമെങ്കിലും ഇത് ഫലപ്രദമാണ് കൃഷി കൃഷി എളുപ്പത്തിൽ ചെയ്യാനും കൂടുതൽ യുവജനങ്ങളെ കാർഷിക വൃത്തിയിലോട്ട് കൊണ്ട് വരാനും ഇതുവഴി സഹായകമാകും കൂടുതൽ ലാർജ് സ്കെലില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നെറ്റ് ഗ്രോസ് പ്രൊഡക്ടിവിറ്റി രാജ്യത്തിൻ്റെ തന്നെ എക്കണോമിക്കലി ഈ നമുക്കൊരു കാർഷിക വിളകൾ കൊണ്ട് കോണ്ട്രിബ്യുട്ട് ചെയ്യാനായിട്ട് പറ്റും പണ്ടൊക്കെ നെല്ലൊക്കെ ആണെങ്കിലും മാനുവൽ ലേബറ് വഴി ആയിരുന്നു അത് നടുന്നതും അതിൻ്റെ വിളവെടുപ്പൊക്കെ ഇപ്പം അത് കൂടുതൽ യന്ത്രങ്ങളിലോട്ട് മാറിയിട്ടുണ്ട് അത് മനുഷ്യൻ്റെ കൂടുതലധികം സഹായകമാക്കുന്നുണ്ട് അതുപോലെ ഒരുപാടാളുകൾ ജോലി ചെയ്യേണ്ട സമയത്ത് യന്ത്രങ്ങൾ വന്നത് കൊണ്ട് തന്നെ മാൻ പവറും വളരെയധികം കുറച്ച് മാത്രം മതി കൃഷിക്ക് വേണ്ടീട്ട് അത് വളരെയധികം ഫലപ്രദമാണ്